ഞാൻ ആദ്യമായിട്ടു ശേഖരിച്ചു വച്ച നാണയങ്ങൾ നാണയങ്ങൾ ഇരുപത്തിയഞ്ച് പൈസ അമ്പത് പൈസ അതുപോലെ തന്നെ ഒരു പൈസ അങ്ങനെയുള്ളെ അതൊക്കെ എപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് എനിക്ക് മൂല്യമേ ഉണ്ടായിട്ടുള്ളൂ കാരണം എന്തെന്നു വച്ചാൽ എൻ്റെ മക്കൾക്ക് അത് അത് എൻ്റെ എൻ്റെ എൻ്റെ മുത്തശ്ശന്മാരുടെ കാലത്ത് അത് ഉണ്ടായിരുന്നതാണ് ആ നാണയങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതുവച്ചിട്ടാണ് പണ്ടുള്ളവർ ജീവിച്ചത് അതൊക്കെ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഒരു വലിയ മൂല്യം തന്നെയാണ്